ഹലോ റിയ ട്രാവൽ ഏജൻസി അല്ലേ ഇത് നെടുങ്കുന്നത്ത് നിന്നാണ് ഈ നെടുങ്കുന്നം പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട് അപ്പോൾ എനിക്ക് ഈ പത്താം തീയ്യതി എറണാകുളത്തിന് ഒന്ന് പോവാനായിട്ട് ഒരു വണ്ടി ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരാണ് പോവുന്നത് അപ്പം അത്യാവശ്യം വലിപ്പം ഉള്ള ഒരു വണ്ടി വേണം ഇന്നോവയോ പിന്നേ അങ്ങനെ ബൊലേറെയോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി സ്പേസ് ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെയെ ഉള്ളു അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഒന്ന് നല്ല സ്പേസ് വേണം ഇരുന്ന് മടുക്കുമ്പോൾ ഒന്ന് ചായാനായിട്ടുമൊക്കെ സൗകര്യം ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ താൽപ്പര്യപ്പെടുന്നത് പിന്നെ അതിന് രാവിലെ പത്ത് മണിക്ക് ആണ് അവിടെ നമ്മൾ എത്തേണ്ടത് അപ്പം നിങ്ങൾ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പത്തേക്കും വീടിൻ്റെ അവിടെ വരണം ഈ മഠത്തിൻ്റെ അവിടുന്ന് മേളിലോട്ടുള്ള വഴി അങ്ങോട്ട് പോയിക്കഴിഞ്ഞു കഴിഞ്ഞ് നാലാമത്തെയാണ് എൻ്റെ വീട് അപ്പോൾ അത് അനുസരിച്ചിട്ട് ആറേ മുക്കാലൊക്കെ ആവുമ്പത്തേക്കും നിങ്ങൾ വരുവാണെങ്കിൽ നമ്മൾക്ക് അവിടെ എറണാകുളം ചെല്ലുമ്പത്തേക്ക് ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രണ്ട് മണിക്കൂർ മതിയെന്ന് പറഞ്ഞാലും ബ്ലോക്ക് കാര്യങ്ങൾ അൺസ്പെക്റ്റടായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സമയം മിസ്സ് ആവാതെ ചെല്ലേണ്ടിയാപേർക്ക് ഇച്ചിരി നേരത്തേ ആറേ മുക്കാലൊക്കെ ആകുമ്പത്തേക്കും വന്നാൽ നല്ലതായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആരാണ് വരുന്നത് നമ്മൾക്ക് ആണുങ്ങളാണോ അതോ പെണ്ണുങ്ങളാണോ ഡ്രൈവേഴ്സ് ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് അയ്യായിരം രൂപയാണോ ആണോ നിങ്ങളുടെ ബൊലേറൊയോ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു തരുകയൊക്കെ നിങ്ങൾ നമ്മൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരികയൊക്കെ ചെയ്യണം ഇത്രയും ഇച്ചിരി വെയിറ്റിംങ് ഉണ്ട് പത്ത് മണിക്ക് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് മണി വരെ നാല് മണിയോളം ആകും നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഫുഡ് നമ്മൾക്ക് അവിടെ കിട്ടും ഉച്ചയ്ക്ക് പിന്നെ തിരികെ വരുമ്പം ഇടയ്ക്ക് എവിടേലും കയറി ഫുഡ് കഴിക്കാം നാല് മണിക്ക് പിന്നെ എന്താണ് പറയുന്നത് എറണാകുളം പോകുന്നതല്ലേ നമ്മൾ ഇത്രയും പൈസ മുടക്കി പോകുന്നതായത് കൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ ലുലുമാളിലും സുഭാഷ് പാർക്കുമൊക്കെ ഒന്ന് കറങ്ങണം എന്ന് കാലാവസ്ഥയൊക്കെ മഴയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ട്രിപ്പ് ആയിട്ട് നമ്മൾക്ക് അവിടെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇപ്പം പൈസ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണോ അതോ പിന്നെ ഗൂഗിൾ പേ പിന്നെ ചെയ്താൽ മതിയോ എവിടെ നിന്നാണ് നിങ്ങൾ ഓക്കേ ഓക്കേ പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കുമല്ലോ പെണ്ണുങ്ങൾ ആയിരുന്നാൽ കൂടുതലും നമ്മൾക്ക് താൽപ്പര്യം ഉണ്ടായിരിന്നു പിന്നെ എന്താണ്